ഹലൊ അതെ അതെ ഇത് ആരായിരുന്നു സംസാരിക്കുന്നത് ആ ഓക്കെ പ്രശ്നം പറഞ്ഞോളു

ഓക്കെ എത്ര ദിവസവായി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഫുഡ്ഡൊട്ടും കഴിക്കുന്നില്ല അല്ലേ ഓക്കെ ഏത് ഇനം പട്ടിയായിരുന്നു ആ ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് വൈറസക്കെ വ്യാപകമായിരിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് അതിന്റെ വല്ലതും സൈഡെഫക്റ്റും ആയിരിക്കും ഓക്കെ പനി നമ്മൾ എന്താ ഇങ്ങനെ വയറ്റീന്ന് പോകുമ്പം പട്ടിക്കെലോ പ്രശ്നമുണ്ടോ ഇനി അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ആണെങ്കിൽ പട്ടിയുടെ കുറച്ചുംകൂടെ ഞാനൊരു ഗൂഗിൾ ഫോം ഇത് വാട്ട്സപ് നമ്പര് അല്ലേ ഞ്ഞാൻ ഒരു ഗൂഗിൾ ഫോം അയച്ച് തരാം അത് നോക്കിയിട്ട് അതൊന്ന് അതിലെ ക്വൊസ്റ്റ്യൻസ്സ് നോക്കിയിട്ട് പട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് അയക്കുക അപ്പം ഞാൻ ആണെങ്കിൽ മരുന്ന് മരുന്ന് പറഞ്ഞ് തരാം പിന്നെ ഇപ്പം പട്ടിയിനെയുംകൊണ്ട് ഒന്ന് വരുകയായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഇങ്ങോട്ട് ആശുപത്രിയിലോട്ട് വരുന്നയായിരിക്കും നല്ലത് പട്ടിക്കെന്തോ സീരിയസാണ് ഓപ്റേഷൻ വല്ലതും വേണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടേ ആ നാളത്തന്നെ കൊണ്ട് വരണം ഓക്കെ ഞാൻ ഇതാണെന്റെ വാട്ട്സപ് നമ്പര് പേരും പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പരുംകൂടെ എനിക്കൊന്ന് വാട്ട്സപ്പ് ചെയ്യണം ആ നമുക്കങ്ങനെ നമ്മുടെ പെറ്റ് ആണിത് നല്ലയിനം ഒരു പട്ടിയും ആണല്ലോ അപ്പം നമുക്കാണെങ്കിൽ കാര്യം എന്താ നോക്കാം നമുക്ക് മരുന്ന് തന്നിട്ട് അത് വല്ലതും വേറെതിന് തെറ്റായ രീതിയിൽ അതിന് ബാധിക്കരുതല്ലോ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാം ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം എന്നേ ഉള്ളു നമുക്ക് വന്ന് കഴിഞ്ഞിട്ട് നോക്കാം ആ ഓക്കെ ശരി ആ ഓക്കെ ബൈ ആ ഉണ്ട് ഉണ്ട് ശരി